എന്റെ വീട്ടിലെ ആളുകൾക്ക് സുഖമില്ലാതെ വന്നാൽ ഞാൻ ആദ്യമേ കൊടുക്കാറുള്ളത് സാധാരണയായി സുഖമില്ല എന്ന് പറയുമ്പോഴ്ത്തേനും പനിയാണ് ഉണ്ടാകാറുള്ളത് കൂടുതലും പനി ഉള്ളപ്പോൾ കൂടുതലും നൽകുന്നത് നല്ല പൊടിയരി കഞ്ഞിയാണ് പൊടിയരി നന്നായിട്ട് വേവിച്ച് കഞ്ഞിയാക്കി കൊടുക്കും അതിനു കറിയായി ചമ്മന്തിയാണ് കൊടുക്കാറുള്ളത് ചിലപ്പോൾ ചുട്ട പപ്പടവും അത് നന്നായി കഴിച്ചാൽ കഴിച്ചാൽ തന്നെ നമുക്ക് ഒരു ക്ഷീണം അകറ്റാം നല്ല ചമ്മന്തി എന്ന് പറയുമ്പോൾ നല്ല തേങ്ങാ ചമ്മന്തി മുളകും ഇഞ്ചിയും ഉള്ളിയും കറിവേപ്പിലയും എല്ലാം ചേർത്ത നല്ല തേങ്ങാ ചമ്മന്തി ചേർത്ത് കഞ്ഞി കുടിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലയൊരു സമാധാനം ഉണ്ടാകാറുണ്ട് അതിന്റെ കൂട്ടത്തിൽ അച്ചാറുണ്ടെങ്കിൽ ഒന്നൂടെ കേമമാണ് നാരങ്ങാ അച്ചാറോ മാങ്ങ അച്ചാറോ അങ്ങനെ എന്തെങ്കിലും ഒരു അച്ചാറുണ്ടെങ്കിൽ വളരെ നല്ലതാണ് അതുപോലെ തന്നെ ചുമ പോലുള്ള സുഖ അസുഖങ്ങൾ ഉണ്ടാകുമ്പോഴ്ത്തേന് ഞാന് രസം ഉണ്ടാക്കാറുണ്ട് നല്ല കുരുമുളകും വെളുത്തുള്ളിയും തക്കാളിയും പുളിയൊക്കെ ചേർത്ത നല്ല രസം ആ രസം കുടിക്കുമ്പോൾ തന്നെ നമുക്ക് തൊണ്ടയിലുള്ള ഒരു കരകരപ്പൊക്കെ മാറാന് നല്ലതാണ് അങ്ങനെ ഞാൻ ഈ രണ്ട് ഭിവങ്ങളും ഉണ്ടാക്കാറുണ്ട്